ആ റോളക്സ് റെസ്റ്റോറൻ്റ് അല്ലേ ആ ഞാനവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതു പോര അപ്പോൾ കുറച്ചു കൂടുതൽ സാധനങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യണമായിരുന്നു ആ ഓക്കെ നേരത്തെ ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയും അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു ആ മറ്റേ ഇവിടേയ്ക്ക് മാനന്തവാടി നമ്മളെ ചെറ്റപ്പാല റോഡിനു വരുന്ന വഴിക്ക് ആ അതുതന്നെ അതുതന്നെ അതുതന്നെ ആ അപ്പോൾ അതിൻ്റെ അതു കൊണ്ടുവന്നിട്ടില്ലല്ലോ അവിടെ നിന്ന് പോന്നിട്ടില്ലല്ലോ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി കൂടുതൽ ഓർഡർ ചെയ്യണം ഞാൻ നേരത്തെ ബിരിയാണി അല്ലെ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ പൊറോട്ടയും അൽഫാമും കൂടി വയ്ക്കുക ആ ഒരു ബീഫ് കറി പിന്നെ കൊക്കോക്കോളയോ മിറിണ്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും ഇല്ല അല്ലെ മൊജിറ്റോ നിങ്ങൾ പാർസലാക്കുന്നുണ്ടോ ആ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൊയിത്തോ അതായത് ഒരു നീല കളറുള്ള മൊയിത്തോ ഇല്ലേ അതും ഒരു ഗ്രീൻ ഗ്രീൻ മൊയിത്തോ കൂടി എടുത്തോ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ഒന്ന് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ ഈ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഓക്കേ ഓക്കേ ആ അങ്ങനെയാണെങ്കിൽ വേഗം കൊണ്ടുവരൂ കേട്ടോ